യദു ഡോക്ടർ അല്ലേ സാറേ എന്താ ഞാൻ കഴിഞ്ഞാഴ്ച വയറ് വേദനയ്ക്കുള്ളൊരു ഇത് കാണിച്ചായിരുന്നു അപ്പോൾ കുറച്ച് മരുന്നൊക്കെ എഴുതി തന്നായിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ടും എനിക്കത് കുറവില്ല ആ തന്ന മരുന്ന് തന്നെ കഴിച്ചത് പിന്നെ എനിക്ക് ജോലിൻ്റെ തിരക്കുകൾ ആയത് കൊണ്ട് കുറച്ച് മരുന്നൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു

ഭക്ഷണം നമ്മൾ ഇപ്പോൾ പുറത്ത് നിന്നാണ് കൂടുതൽ കഴിക്കൽ ആണല്ലെ

അല്ല കുഴപ്പമില്ല എന്നാലും ഇടയ്ക്ക് ഭയങ്കര ഒരു കുത്തലൊക്കെ വരും പിന്നെ ഈ ഇടെ ആയിട്ട് ഈ ഇടെ ആയിട്ട് കുറച്ച് നടുവേദനയൊക്കെ ഉണ്ട് വേറെ ഞാനിവിടെ കുറച്ച് തല വേദനയ്ക്കുള്ള ഇതൊക്കെ കഴിക്കാറുണ്ട് തലവേദന വരുമ്പോൾ എന്തോ പാരസെറ്റമോളൊക്കെ കഴിക്കാറുണ്ട് ആണല്ലേ അല്ല ഞാൻ തലവേദന വരുമ്പോൾ മാത്രമേ പാരസിറ്റമോൾ കഴിക്കാറുള്ളു അത് ഇടയ്ക്കേ വരികയുള്ളൂ ഈ ജോലിൻ്റെ ഒക്കെ സ്ട്രെസ്സ് കാരണം ഞാൻ ഇടയ്ക്ക് കഴിക്കാറുണ്ട് ആ ആ അല്ല ഞാൻ എന്തായാലും എന്താ അടുത്താഴ്ച്ച ഒക്കെ ആകുമ്പത്തേക്കും ഒന്ന് ഹോസ്പിറ്റലിൽ വരുന്നുണ്ട് ഞാൻ വയനാട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് അപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വരാം ആ അല്ല വേണ്ട ഇത് തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തോളാം പിന്നെ എന്താണെന്ന് വെച്ചാൽ എന്താ ആ അടിവയറ്റിലാണ് വേദന ഇങ്ങനെ മൂത്ര കടച്ചിൽ പോലെ അങ്ങനെ എന്തോ സംഭവം ആണോന്ന് എനിക്കറിയില്ല ആ അല്ല എനിക്കെന്തായാലും ഇവിടെത്തെ ഹോസ്പിറ്റൽ അത്രയ്ക്കൊന്നും വിശ്വാസമില്ല അപ്പോൾ അവിടെ തന്നെ വരാം അല്ലേ ആ ഓക്കെ ഓക്കെ താങ്ക്യു സാർ